ഞാൻ കണ്ട പക്ഷികളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമായി തോന്നിയത് മയിലാണ് മയിലിനെ കാണാനെന്ത് രസമാണ് അതിൻ്റെ പീലി അത് പീലി വിടർത്തി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അത് കാരണം എനിക്ക് അതിൻ്റെ അതിനെയാണെനിക്കേറ്റോം കൂടുതൽ ഇഷ്ടം പല സ്ഥലങ്ങളിൽ നിന്നും അത് ഒരു സ്ഥലത്ത് നിന്നും അത് വേറൊരു സ്ഥലത്തേക്ക് വരുന്നു അതിൻ്റെ ആ ശരീരം പ്രകൃതി തന്നെ പക്ഷികളിൽ വെച്ച് വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് തോന്നീട്ടുള്ളത് ഭംഗിയും അതുപോലെ തന്നെ മറ്റ് പക്ഷികളെക്കാളും നല്ല ഭംഗിയാണ് മയിലിനെ കാണാൻ മയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാറില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് വരാറുള്ളു അതിന് ഇഷ്ടമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം അത് വരികയും അതുപോലെ പോകുകയും ചെയ്യുന്നു ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് പ്രാവശ്യം മയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് തിരികെ പോയിട്ടുമുണ്ട് അത് സ്ഥിരമായി ഒരിടത്തും താമസിക്കുന്നില്ല വരികയും പോവുകയും ചെയ്യുന്നു സ്ഥിരമായി കാണാറില്ലാത്തത് കാരണം അതിനെ വല്ലപ്പോഴും കാണുന്നത് കൊണ്ട് മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ വാ വരുന്നത് കാണാനും പോകുന്നത് കാണാനും വന്നാൽ അത് ഉടനെ തന്നെ തിരികെ പോകില്ല കുറെ സമയം ആ പ്രദേശത്ത് കൂടെയോക്കെ നടന്ന് ആ പീലി വിടർത്തി അവിടെ നിന്ന് ഭംഗി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും പീലിവിടർത്തി നിന്ന് കുറെ സമയം കഴിഞ്ഞേ അത് തിരികെ പോകാറുള്ളു എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ കണ്ടാൽ ഞാൻ മറ്റുള്ളവരെയും വിളിച്ച് കാണിക്കും കാണിക്കും പക്ഷിയെ കാണുവാൻ നല്ല രസമാണ് രസമാണ് കാണുന്നവരെല്ലാം അതിനെ തന്നെ നിരീക്ഷിച്ച് കൊണ്ടിരിക്കും കുറെ സമയം കഴിയുമ്പോൾ അത് പെട്ടന്ന് അപ്രത്യക്ഷമാകും അത് മാറി പോകും അതിനെ പിന്നെ വളരെ ദിവസങ്ങൾ കഴിഞ്ഞ് ശേഷം മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മളതിനെ കാണുന്ന സമയം അത്രയും നോക്കി നിൽക്കും ഒരുപാട് സമയങ്ങളിലൊന്നും നിൽക്കാറുമില്ല കുറെ സമയം കഴിയുമ്പോൾ അത് പോകും അതുകാരണം അതിനെ നമുക്ക് അങ്ങനെ നിരീക്ഷിച്ച് നിൽക്കാനും കഴിയത്തില്ല എങ്കിലും എറ്റവും നല്ല ഭംഗിയുള്ള പക്ഷി എന്ന് പറയാൻ എനിക്ക് എന്റെ എന്റെ മനസ്സിന് എറ്റവും കൂടുതലിഷ്ടപെട്ടത് മയിൽ തന്നെയാണ് മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് നിശബ്ദമായി നിൽക്കുകയും പീലി വിടർത്തുകയും ഭംഗിയിലും രൂപത്തിലും ഭാവത്തിലും അത് നല്ലത് തന്നെയാണ്